ഹലോ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതായിരുന്നു അതെ അതെ ആ അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവറ് ഇത് എന്താ പറയുക ഒരു കോവിഡിൻ്റെ ഒരു സാഹചര്യമല്ലേ അപ്പോൾ നമ്മൾ ഡ്രൈവർമാരൊക്കെ മാസ്ക് ധരിക്കണം എന്നു ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു കാരണം ഞാൻ ആ പുള്ളിയിനോട് മാസ്ക് ധരിക്കാൻ പറഞ്ഞു പക്ഷെ ആ പുള്ളി അതൊന്നും വക വയ്ക്കാണ്ടാണ് വണ്ടി ഓടിച്ചു കൊണ്ടിരുന്നത് അപ്പം മാസ്ക് ധരിക്കാണ്ട് ഈ ഒരു സമയത്ത് വണ്ടി വണ്ടിയോടിക്കാനും നമ്മളിപ്പം ഓരോരുത്തർ എവിടെ നിന്ന് വരുന്നതാണെന്നൊന്നും പായാനൊന്നും പറ്റില്ലലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുകയൊക്കെ ചെയ്തിരുന്നു മാസ്ക് ധരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി മാസ്ക് ഒന്നും ധരിക്കാണ്ട് വണ്ടിയോടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ അതെ അതെ ആ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലുള്ള സീറ്റിലൊന്നും അങ്ങനെ എന്താ പറയുക ഒരു വൃത്തിയില്ലാത്ത ഒരു വണ്ടിയായിരുന്നു ഇപ്പോൾ വേറെ ഏതോ കസ്റ്റമറ് ഇരുന്ന് അവറുടെ സ്നാക്ക്സും കാര്യങ്ങളൊക്കെ കഴിച്ചതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാക്കിൽ അതൊന്ന് വണ്ടി ഒന്ന് കഴുകിയിട്ടെങ്കിലും കൊണ്ടുവരണ്ടേ ആ ആ ആ ആ ഓക്കേ ഓക്കേ ആ അത് അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പോൾ ഇനിയെങ്കിലും ആരോടും അങ്ങനെ എന്താ പറയുക വണ്ടിയൊന്നും നല്ല രീതിയിലൊക്കെ കൊണ്ടുപോവാൻ പറ ഓക്കേ